മലയാളത്തില് സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ പലപ്പോഴും ബുദ്ധിമുട്ടുകള് നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില വാക്കുകൾ ആയാലും ചില അക്ഷരങ്ങൾ ആയാലും എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ബുദ്ധിമുട്ടുകള് ഏര്പ്പെടാറുണ്ട് അല്ലെങ്കില് ബുദ്ധിമുട്ടിക്കാറുണ്ട് നമ്മളെ അങ്ങനെ പല സന്ദര്ഭങ്ങളിൽ ഉണ്ടായ ഒരു ഒരു ഉദാഹരണമാണ് ശത്രുഘ്നന് അത് ആ ഒരു വാക്ക് എഴുതുമ്പോള് അതില് ഉള്ള അക്ഷരങ്ങൾ അതിന്റെതായ ഒരു രീതി അതിന്റെ ഒരു ക്രമം അതൊക്കെ കണ്ടു പിടിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് പെടാറുണ്ട് അങ്ങനെ പലപ്പോഴും പല മറ്റ് പല വാക്കുകള് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ എഴുതുമ്പോഴും ബുദ്ധിമുട്ടുകള് ഉണ്ടാവുന്നുണ്ട് അത് ഉണ്ടാകാതിരിക്കാന് നമ്മള് ആ വാക്കുകള് അല്ലെങ്കിൽ ആ സംസാര ഭാഷകള് ആ ഭാഷയില് പ്രാവിണ്യം നേടുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കരുതപ്പെടുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ആ ഭാഷയെ കൂടുതല് സ്നേഹിക്കാനും ആ ഭാഷ കൂടുതല് മനസ്സിലാക്കാനും ആ ഭാഷയില് കൂടുതല് ആശയങ്ങള് പ്രകടിപ്പിക്കാനും നമ്മൾക്ക് സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചില സന്ദര്ഭങ്ങളില് ഈ ഭാഷയിലെ അല്ലെങ്കില് മലയാളത്തില് സംസാരിക്കുമ്പോൾ എഴുതുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് വലിയ പ്രശ്നങ്ങളായി തന്നെ പരിണമിക്കാറുണ്ട് അത് ശരിയായി ഭവിക്കാന് മറ്റു കാര്യങ്ങള് പലപ്പോഴായി ചെയ്യേണ്ടതുണ്ട് അതിൽ എന്നാണ് നമ്മുടെ ആ വാക്കുകള് കൂടുതലായി സംസാരിക്കുക അത്തരം വാക്കുകള് കൂടുതലായി പരിചയപ്പെടുക അത്തരം സന്ദര്ഭങ്ങളില് കൂടുതല് ആയി എഴുതുക അത്തരം വാക്കുകള് കൂടുതൽ എഴുതുക അങ്ങനെയൊക്കെ ചെയ്യുന്നന്നത് അതിന് നല്ലതായിരിക്കും